ഹായ് മാം ബിഗ് ബസാറിലേക്ക് സ്വാഗതം എന്താണ് വേണ്ടത് ആ ഉവ്വ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ദേ ഫ്രഷ് ആയിട്ട് ദേ ഇപ്പം വന്ന് ഇറക്കിയിട്ടേ ഉള്ളു ആ പപ്പായ അവൈലബിളാണ് പപ്പായ തന്നെ അതിൽ രണ്ട് മൂന്ന് ടൈപ്പുണ്ട് ആ ആ കേസർ മാംഗോ ഉണ്ട് ഉണ്ടുണ്ട് ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആ സെക്കൻഡ് ഫ്ലോറില് റൈറ്റ് സൈഡിലായിട്ട് വരും ആ അതെ അതിന് ഒന്നേ പത്താണ് കിലോ ഇപ്പം വന്നേക്കുന്ന റേറ്റ് ആ ഓ ഉം ആ പപ്പായ ഫ്രഷ് ആണ് ഒര് കിലോ അറുപതാണ് വന്നേക്കുന്നത് ആ ഓറഞ്ച് അതൊര് കിലോ തൊണ്ണൂറാണ് വന്നേക്കുന്നത് ആ ആ എടുക്കാം മാഡത്തിനിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ട് എന്റെ അടുത്ത് വന്നാൽ മതി ഞാൻ ബില്ലടിച്ച് തരാം വേറെ ഫ്രൂട്ട്സായിട്ടിപ്പോൾ ഗ്രേപ്സ്സ് ഒരു നാല് ടൈപ്പ് വന്നിട്ടുണ്ട് അത് പോലെ ആപ്പിൾ വന്നിട്ടുണ്ട് വാട്ടർ മെലൺ അവൊക്ക്യാഡോ അങ്ങനെ ഒരുപാട് നല്ല ഫ്രെഷ് ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ ഉണ്ട് ഉണ്ട് ആപ്പിൾ ഇപ്പോൾ തൊണ്ണൂറു തന്നെയാണ് ഒര് കിലോ തൊണ്ണൂറാണ് റേറ്റ് വന്നേക്കുന്നത് ആ ഫ്രെഷ് വെജിറ്റബിളും വന്നിട്ടുണ്ട് ആ അതുപോലെ തന്നെ ഇപ്പോൾ അത് വെജിറ്റബിൾസ്സ് ഇപ്പോൾ വിഷുവൊക്കെ ആയത് കൊണ്ട് ഇപ്പം റേറ്റ് അല്പം കൂടുതലാണ്

ആ വരൂ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്സ് വന്നിട്ടുണ്ട് കേട്ടോ ആ ആ ഉവ്വ് മാം ഫ്രീ ആണ് ഞാൻ വരാം എന്നാൽ ഓക്കെ എന്നാൽ പിന്നെ എന്തൊക്കെ ആ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഞാൻ ബില്ലടിച്ച് തരാം ആ ഓക്കെ